വേനൽക്കാലത്ത് ചെടികളെ വളരെയധികം സംരക്ഷിക്കണം വേനൽ കാലത്ത് സംരക്ഷിക്കുന്ന പോലെ തന്നെ നമ്മൾ തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്തും ചെടികൾക്ക് സംരക്ഷണം ആവശ്യമാണ് അതിൽ വേനൽക്കാലത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേനൽ കാലത്ത് കൂടുതലും നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ചെടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കാരണം എത്ര വെള്ളം കിട്ടിയാലും അത് വെയിലിൻ്റെ കാഠിന്യം മൂലം അത് അബ്സോർബ് ആയി പോകും അപ്പോൾ നമ്മൾ വേനൽകാലത്ത് രണ്ട് നേരവും ചെടികൾ നനയ്ക്കാറുണ്ട് അതുപോലെ പിന്നെ ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ ഈ കരയിലകൾ കരിയില മുറ്റത്ത് തൂത്തുകുട്ടുന്ന കരിയിലകൾ ചെടിച്ചട്ടികളിലും തടങ്ങളിലും ആയിട്ട് ഇട്ടുവയ്ക്കും ഇട്ട് വെച്ചിട്ട് അത് നമ്മൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നനവുകൾ നിൽക്കാറുണ്ട് പിന്നെ ഈ തോടിൻ്റെ അട് അടുത്തുള്ള പായലുകൾ തോട്ടിൽ കിടക്കുന്ന പായലുകൾ പോളകൾ ഇതൊക്കെ വാരിയെടുത്തിട്ട് ഈ തടങ്ങളിലൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വെള്ളം നിർത്താൻ പറ്റും ഒരു പരിധി വരെയൊക്കെ അങ്ങനെ കരിഞ്ഞുപോകുന്ന ചെടികൾ എന്ന് പറയുമ്പോൾ ഏറെക്കുറേ എല്ലാം വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകുന്ന ഇനങ്ങൾ തന്നെയാണ് ഈ റംബുട്ടാൻ എന്ന് പറയുന്ന ഇത് പഴവർഗ്ഗം പഴ വർഗത്തിൽപ്പെട്ട ആ ചെടി ഒരുപാട് തവണ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട് പോയതാണ് ഈ വേനൽക്കാലം വന്നപ്പോൾ അത്ര നമ്മൾ എത്രയൊക്കെ വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാലും അത് നശിച്ചു പോകാറുണ്ടായിരുന്നു അതുപോലെ ഈ മഴക്കാലത്തെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്നുവെച്ചാൽ വെള്ളം നിന്ന് ചീഞ്ഞുപോകും അല്ലെങ്കിൽ ചുവട് വിട്ടത് മറിഞ്ഞ് പോകും വെള്ളത്തിൻ്റെ പ്രസൻസ് വന്നുകഴിഞ്ഞാൽ തന്നെ ആ വെള്ളം ഉള്ള സമയത്ത് നഷ്ടപ്പെടുന്ന ചെടികൾ എന്ന് വെച്ചാൽ പപ്പര നഷ്ടപ്പെടാറുണ്ട് വാഴകൾ പോകാറുണ്ട് അതുപോലെ നമ്മൾ ഒരു തീരദേശം അങ്ങനെ ഉള്ള ഒരു പ്രദേശമാണ് ഇത് ഇവിടെ ഇവിടെ ജാതിമരം ഈ വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാറില്ല കാരണം നമ്മൾ ഒരു ജാതിമരം കൊണ്ടുവെച്ചു അത് ഒരുവിധം വലുതായി ആ വരുന്ന മഴയിൽ അത് എങ്ങനെയായാലും അത് നശിച്ചു പോകും പിന്നെ നമ്മൾ വേനൽ സമയം ആവുമ്പോൾ പച്ച കളറിലെ നെറ്റ് പോലത്തത് ചെടികൾക്ക് മീതെ വലിച്ചു കെട്ടി കൊടുക്കാറുണ്ട് അത് ഒരു പരിധി വരെ അവർക്ക് തണലേകും അതുപോലെ തന്നെ ഓല തെങ്ങോലകൾ കുത്തി കൊടുക്കാറുണ്ട് അതായത് തെങ്ങോല മുറിച്ചിട്ട് ഈ ഇതിന് സമീപം ആയിട്ട് നാട്ടി കൊടുക്കും അതായത് കുഴി ഉണ്ടാക്കി മണ്ണിൽ കുത്തി നിർത്തും അപ്പം ആ ഓലയുടെ ഒരു തണലിൽ അതെന്ത് ചെയ്യും ഈ പിന്നെ വെയിലിനെ അതിജീവിച്ചുകൊണ്ട് പോകാറുണ്ട് പിന്നെ മഴയുള്ള സമയത്ത് ചീഞ്ഞു പോകുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അവസ്ഥയാണ് കുറേയൊക്കെ നമ്മൾ ഷീറ്റ് ഉള്ള ഭാഗത്തേക്ക് എടുത്തു വയ്ക്കും മഴവെള്ളം നേരിട്ട് എൽക്കാത്ത രീതിയിലേക്ക് എടുത്തു വയ്ക്കാറുണ്ട് എങ്കിൽ പോലും മഴയുള്ള സമയത്ത് ഈ വൾ പടർന്നു കയറുന്ന ചെടികളൊക്കെയാണെങ്കിലും അത് നശിച്ചു പോകാറുണ്ട് അതുപോലെ പൊതുവേ കായി ഫലം കുറഞ്ഞ രീതിയിലാണ് കാണുന്നത് പിന്നെ മഞ്ഞുകാലം ഒക്കെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പയറുകളൊക്കെ പിടിക്കാറുണ്ട് അപ്പം ഒരുപാട് രോഗങ്ങൾ അതിനെ ബാധിക്കാറുണ്ട് മുഞ്ഞ എന്ന് പറയുന്ന ഒരു രോഗം ബാധയുണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ നശിച്ചു പോകാറുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രതിവിധികൾ ചെയ്യാറുമുണ്ട്